എൻ്റെ പ്രദേശത്ത് അതായത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്നുള്ള സ്ഥലത്ത് ഒരു തികച്ചും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു മതാചാരമാണ് ഉള്ളത് അത് ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രമല്ല രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം തോന്നിക്കുന്ന മതാചാരം അതായത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രമുഖ മുസ്ലിം പള്ളിയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രവും ഈ രണ്ട് ഈ രണ്ട് സമുദായവും തമ്മിലുള്ള അതായത് ഈ ക്ഷേത്രവും ഈ മുസ്ലിം പള്ളിയും ഒരുമിച്ച് നടത്തുന്ന ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് ചന്ദനക്കുടം എന്ന് പറയുന്നത് ഒരു ആഘോഷം ഇതിൽ ഈ മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കുന്നത് ഈ ആഘോഷവേള ഡിസംബർ മാസമാണ് നടക്കാറുള്ളത് ഈ മാസം ആ ചന്ദനക്കുടം ആചരിക്കുന്ന ദിവസം ക്ഷേത്രത്തിൽ നിന്നും മുസ്ലിം പള്ളിയിൽ നിന്നും അതാത് മത പ്രധാനികൾ ഒരുമിച്ച് കൂടുകയും അതൊരു തികച്ചും ഒരു വലിയ ഒരു ഉത്സവമാക്കി മാറ്റ മാറാറുണ്ട് അതിൽ ഇതര ജാതി മതം മത മതത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുകയും വളരെ സന്തോഷപൂർവ്വം അവരെല്ലാവരും ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലുള്ള നിവാസികൾ അതായത് ഹിന്ദു എന്നില്ല ക്രിസ്ത്യാനികൾ എന്നില്ല മുസ്ലിമുകൾ എന്ന് എന്നില്ല എല്ലാ മതത്തിൽ വിഭാഗപ്പെട്ട വിഭാഗത്തിൽ പെട്ടവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഈ ചന്ദനക്കുടം എന്ന് ഉള്ളത്